ഉത്തരേന്ത്യൻ ആഹാര പദാർത്ഥം പാചകം ചെയ്യാനാണ് എനിക്ക് താല്പര്യം കാരണം ഉത്തരേന്ത്യൻ ആഹാരങ്ങളിൽ കുറെ തരം വൈവിധ്യമാർന്ന ആഹാര രീതികളുണ്ട് ആഹാര വൈവിധ്യങ്ങളുണ്ട് പൊതുവെ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നു കൂടിയാണ് സാമ്പാർ സാമ്പാറിന് നമ്മൾ ഒന്നാമത് സാമ്പാർ നല്ലതാണ് കാരണം അതിൽ കുറെ തരം പച്ചക്കറികളുണ്ട് നമുക്ക് നമുക്ക് നമ്മളിൽ എന്ത് പച്ചക്കറികളാണ് ഉള്ളത് അത് വച്ച് നമുക്ക് സാമ്പാർ ചെയ്യാം അതുപോലെ കുട്ടികൾക്ക് നല്ലത് നല്ലൊരു കറിയും കൂടിയാണ് സാമ്പാർ അതിലുള്ള കാരറ്റ് ചേന ഉരുളക്കിഴങ്ങ് പരിപ്പ് തുടങ്ങിയ മുരിങ്ങ കൊമ്പ് വെണ്ടക്ക തക്കാളി ഉള്ളി ഉള്ളി തുടങ്ങിയ നിരവധി പച്ചക്കറി സാധങ്ങൾ ഇട്ടിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് അതൊരു എന്താണ് പറയുക നമ്മൾ ആഹാരത്തിൽ കൂടി ചേർത്താൽ കൂടി നമ്മൾ ആരോഗ്യത്തിന് നല്ലതായൊരു കറി നല്ലതായൊരു കറിയും കൂടിയാണ് സാമ്പാർ സാമ്പാറിൻ്റെ ഒക്കെ തന്നെ നമുക്ക് ഏത് ആഹാരവും ഇണങ്ങുന്ന ഒരു ഇതാണ് കാരണം സാമ്പാറിൻ്റെ ഒക്കെ ഇഡലി പോകും ഏത് ഏത് അപ്പങ്ങളായാലും ഇപ്പം ചോറും സാമ്പാറും ഇഡലി സാമ്പാർ ദോശയും സാമ്പാറും ഇടിയപ്പവും സാമ്പാറും പുട്ടും സാമ്പാറും അങ്ങനെ എല്ലാ എല്ലാ ആഹാരത്തിൻ്റെ ഒക്കെയും പോകുന്ന ഒരു കറി കൂടിയാണ് സാമ്പാർ നമുക്ക് നമ്മളെ അടുക്കള തോട്ടത്തിൽ വച്ചിട്ട് തന്നെ പച്ചക്കറിയുണ്ടാക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കാം പക്ഷെ അതിനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട ഒരു സ്ഥിതി കൂടിയാണിപ്പോൾ പച്ചക്കറികൾക്ക് വേണ്ടിയിട്ട് അതുപോലെ വിലയും പിന്ന വറുത്തരച്ച സാമ്പാറാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് കുറച്ച് കടല പരിപ്പ്

കൊത്തമ്പാരി ജീരകം കുറച്ച് തേങ്ങയിട്ടിട്ട് നന്നായിട്ട് മുപ്പിച്ചിട്ട് ഒരു ഒരു കാപ്പി കളർ ആകുന്നത് വരെ നമുക്ക് ഒന്ന് മുപ്പിച്ചിട്ട് എടുത്തിട്ട് അരിച്ചെടുത്താൽ വേറെയൊന്ന് സാമ്പാർ നമ്മൾ ഉണ്ടാക്കുമ്പോൾ മസാലൻ്റെ ആവശ്യം വരുന്നില്ല ഈ ഒരു അരപ്പ് തന്നെ മതിയാവും വേറെ ഒരു സാമ്പാർ പൊടിയോ ഒന്നും വേണ്ട അതിൻ്റക്ക കുറച്ച് കായം കൂടി ഇട്ടാൽ നല്ല ഒരു അടിപൊളി സാമ്പാർ നമുക്ക് തയ്യാറാക്കാം അതുപോലെ തന്നെയാണ് ബിരിയാണി ഫിഷ് ഫ്രൈ പിന്നെ മീൻ പൊരിച്ചത് തന്നെ കുറെ രീതിയി ൽ നമുക്ക് ഉണ്ടാക്കാം ഇലയിൽ വച്ചിട്ടുണ്ടാക്കാം എണ്ണയിൽ മുക്കി പൊരിച്ചിട്ട് ഉണ്ടാക്കാം അതുപോലെ തന്നെ ഉണ്ടാക്കുന്ന മസാലയിലും മസാലയിലും വ്യത്യാസമുണ്ട് മീൻ പൊരിക്കുമ്പോൾ നമുക്ക് സിംപിളായിട്ടും ചെയ്യാം അതുപോലെ തന്നെ കുറച്ചും കൂടി പരമ്പരാഗത രീതിയിലും ചെയ്യാം ഏത് ആഹാര പദാർത്ഥമായാലും അത് നമുക്ക് ഇഷ്ടം ആ ഒരു ഇതുപോലെ നമുക്ക് ഏതൊരു ഭക്ഷണ കാര്യത്തിലും ചെയ്യാവുന്നതാണ് പിന്നെ മീൻ കറി അതുപോലെ തന്നെ വറവുകൾ കുറേ തരം വറവുകൾ ഞങ്ങൾക്ക് പച്ചകറി വച്ച് ചെയ്യാവുന്നതാണ് പയർ വച്ച് ചെയ്യാം ബീറ്റ്റൂട്ട് കാബ്ബേജ് ബീൻസ് വെണ്ടക്ക ഇതൊക്കെ പച്ച കറി ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതും കൂടിയാണ് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കൂടിയൊന്നാണ് മീൻ കറി മീൻ കറിയുണ്ടാക്കുമ്പോൾ മുളകിലിട്ടിട്ടും വയ്ക്കാം തേങ്ങ അരച്ചിട്ടും വയ്ക്കാം മുളകിൽ ഇട്ടിട്ട് വയ്ക്കുകയാണെങ്കിൽ കുറച്ച് എണ്ണ നമ്മൾ ചട്ടിയിൽ ഒഴിച്ചതിന് ശേഷം ആ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു നല്ല ഒരു മൊരിഞ്ഞ ഭാഗത്തിൽ നമ്മൾ അതിലേക്ക് നമുക്ക് ഉള്ളിയിടാം ഉള്ളിയൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് തക്കാളിയിടാം തക്കാളി ഇട്ടതിന് ശേഷം തക്കാളി ഇട്ടതിന് ശേഷം അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് ഒരു ഒരു മിനിറ്റ് സമയം ഇളക്കി കൊണ്ടിരിക്കുക ശേഷം ആവശ്യത്തിന് പുളിവെള്ളവും വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിള വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് ഏത് മീനാണ് നിങ്ങളുടെ കൈയിൽ ഉള്ളത് അത് നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം അതിൽ കുറച്ച് തിളച്ചതിന് ശേഷം കുറച്ച് ഉലുവ പൊടിയിട്ടാൽ നല്ല സ്വാദിഷ്ടമായ മീൻ മുളക് കറി റെഡിയാവും അതുപോലെ തന്നെയാണ് ഞാൻ പൊരിച്ചതും നമുക്ക് ഏത് മീനാണോ കൈയിലുള്ളത് നമുക്ക് നമ്മളുടെ രീതിയിലുള്ള നമുക്ക് നമ്മുടേതായ രീതിയിൽ നമുക്ക് ഏതൊരു ആഹാരപദാർത്ഥവും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമ്മളുടെ കൈയിൽ ഏത് എത്ര കുറച്ച് സാധനങ്ങൾ ഉണ്ടായാലും അതെല്ല അതിനോടുള്ള താല്പര്യം കൂടിവേണം പിന്നെ കടലക്കറി ഉണ്ടാക്കാം പുട്ടും കടലക്കറിയും നല്ലൊരു കോമ്പിനേഷനാണ് വറുത്തരച്ച കടലക്കറി അതിന് നല്ലൊരു പുട്ടിന് നല്ലൊരു കറിയാണ് കടല കറി ഉത്തരേന്ത്യൻ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നിരവധി തരം വൈവിധ്യമാർന്ന കറികളും ആ കറികൾ തന്നെ കുറേ തരം ഉണ്ട് വൃത്തിശ് വൃത്തിശ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു ഒരു കറി തന്നെ നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും സാമ്പാറായാലും കടലക്കറിയായാലും ആ ഇതു പോലെ ഏത് കറികളായാലും നമുക്ക് നമ്മളുടെ രീതിയിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഇതാണ് അതിനുള്ള താല്പര്യം കൂടി വേണം നമ്മൾ എന്ത് ചെയ്യുമ്പോൾ അതിനുള്ള ഒരു ആത്മാർഥത വേണം പിന്നെ ഏറ്റവും ഏറ്റവും എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം സമർപ്പിൽ തന്നെ ബിരിയാണി ഫേമസായത് പ്രശസ്തമായ ഒരു കാര്യം ഒരു ഫുഡും കൂടിയാണ് ബിരിയാണി ചിക്കൻ ബിരിയാണി അതുപോലെ തന്നെ തലശ്ശേരി ബിരിയാണിയുണ്ട് പിന്നെ ധം ബിരിയാണി ഉണ്ട് അങ്ങനെ കുറെ കുറെ തരങ്ങൾ കുറെ തരത്തിലുള്ള ബിരിയാണി കൂടിയുണ്ട് നമുക്ക് ബിരിയാണികൾ എളുപ്പത്തിണ്ടാക്കാനും പറ്റും കുക്കർ വച്ചിട്ട് നമുക്ക് എളുപ്പത്തിലുണ്ടാക്കാം പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ് ബിരിയാണി ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കാം നമുക്ക് കുക്കർ വച്ച് ബിരിയാണി

മീൻ മീൻ അതേപോലെ തന്നെ ചിക്കൻ പൊരിച്ചത് ചിക്കൻ പൊരിച്ചതും നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം ചിക്കൻ പൊരിച്ചതിന് കുറച്ച് അതിലേക്ക് മുളക് പൊടിയിടാം ചിക്കൻ പൊരിച്ചതിൻ്റെ പൊരിക്കുന്ന രീതി പറയുകയാണെങ്കിൽ മുളക്പൊടി കുരുമുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പും മഞ്ഞ പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ചതച്ചത് പിന്നെ കറിവേപ്പില ചെറുതായി അരിഞ്ഞത് ഇത് കുറച്ച് കോൺഫ്ലോർ ഒക്കെ ഇട്ടിട്ട് ആവിശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം വെള്ളമാവാതെ കുറച്ച് കട്ടിയായിട്ട് തന്നെ മിക്സ് ആക്കുക എന്നിട്ട് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കുക കുറച്ച് സമയം നമ്മൾ അതിനെ മാറ്റി വച്ച ശേഷം വെളിച്ചെണ്ണയിലോ സൺഫ്ലവർ ഓയിലിലോ നമുക്ക് പൊരിച്ചെടുത്ത നല്ല സ്വാദിഷ്ടമായ ചിക്കൻ പൊരിച്ചത് റെഡിയായി ചിക്കൻ പൊരിക്കുമ്പോൾ അതേ എണ്ണയിൽ കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടാൽ ഒന്നും കൂടി നല്ലതാക്കാൻ നമുക്ക് പറ്റും ചിക്കൻ ഫ്രൈ പാചകം അതൊരു കലയാണ് നാ നമുക്ക് ആഹാരം കഴിക്കുന്നതിനോടൊപ്പം തന്നെ ഉണ്ടാക്കാനുള്ള താല്പര്യവും ഉണ്ടാവണം പാചകം അതൊരു കലകൂടിയാണ് നമ്മൾ പാചകം ചെയ്യുന്നതിനോടൊപ്പം തന്നെ അത് ആസ്വദിച്ചിട്ട് ചെയ്യാനും നമ്മൾ ശ്രമിക്കണം

നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം പറ്റും നമ്മൾ വിചാരിച്ച രീതിയിൽ തന്നെ നമുക്ക് നമുക്ക് ഇതിനെ തന്നെ വെജിറ്റബിൾസ് ആയാലും നമ്മളെ കൈയിൽ ഏത് എത്ര കുറച്ച് സാധനങ്ങൾ ഉണ്ടായാലും നമുക്ക് അതിനെ നല്ല മികച്ച രീതിയിലുള്ള ഭക്ഷണം പാചകം ചെയ്യാൻ കഴിയും